മുമ്പോഴത്തെ പോലെ അല്ല ഇപ്പോള് മൊബൈൽ വഴി ഗൂഗിള് പേ വേ പേമെന്റ്കൾ പിന്നെ മറ്റു കാര്യങ്ങളും എല്ലാം ഒത്തിരി ഇന്റര്നെറ്റ് വഴി പേയ്മെന്റ് നടക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഏറെ പഴയതിനെ അപേക്ഷിച്ച് ഒത്തിരിയേറെ വികസനങ്ങൾ ഈ അടുത്ത വര്ഷങ്ങളിലായി ഇന്ത്യക്ക് സമ്പല്സ് വ്യവസ്ഥകൾ വളരേ വികസിക്കുകയും ചെയ്തു അപ്പം അങ്ങനെയാണ് ഞാന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒത്തിരി ഫോണ് വഴിയും ഒക്കെത്തന്നെ ഒത്തിരിയേറെ വളര്ച്ചകള് ഉണ്ടായി എന്നാണ് ഞാന് കരുതുന്നത് അതിൽ ആണ് ഞാന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത്